അതായത് എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഫുള്ള് നട്ടത് കുടുതലും പൂക്കള് പൂക്കള് നട്ടിരുന്നത് എവിടെയാന്ന് വച്ചിട്ടുണ്ടെങ്കില് അതായത് വീട്ടിൻ്റെ ഫ്രണ്ടില് കുറേ അതായത് നമ്മളിങ്ങനെ ബെഞ്ച് പോലെയാക്കിയിട്ട് അതിൻ്റെ മേലെ പൂച്ചെടികള് കുറെ നിറച്ച് വച്ചിട്ടുണ്ട് അത് അതായത് പ്ലേറ്റ് ചെടികൾ ഉണ്ടാവു അല്ലോ പല നിറത്തിലുള്ള ഉം അങ്ങനെയുള്ള ചെടികളൊക്കെ അതൊക്കെ നമ്മള് കുറെ വലുതാകുമ്പം ചെറിയ ചെറിയ കൊമ്പുകൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും വീട്ടിൽ കൂടി വീടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് അവര് ചോദിക്കും ഒരു കൊമ്പ് തരുമോ എന്ന് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും പിന്നെ പഴങ്ങളെന്ന് പറയുമ്പോൾ അതിനുമാത്രം പഴങ്ങളൊന്നും ഉണ്ടാകാറില്ല നമ്മളുടെ വീട്ടിലേകെകെ ആവശ്യമുള്ള പഴങ്ങള് മാത്രമെ ഉണ്ടാകാറുള്ളു റംബൂട്ടാനൊക്കെ ഉണ്ട് റംബൂട്ടാൻ്റെ ചെടി കുറവാണ് വലിയ ചെടിയുണ്ട് നിറച്ചും പഴങ്ങളുണ്ടാകും അപ്പം നമ്മള് തിന്നുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പം കുടുംബക്കാർക്ക് കൊടുക്കും പിന്നെ വീടിനടത്തുള്ളവർക്ക് പറിച്ചു കൊടുക്കും അങ്ങനെ കടയിലങ്ങനെ വിൽക്കാനുള്ള തൊന്നും കൊടുത്തിട്ടില്ല ഇതുവരേ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് വീട്ടില് പിന്നേ മക്കളുടെ വീട്ടില് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊടുക്കും പിന്നെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നെ പൂക്കള് സാധാരണ അങ്ങനെയേ ചെയ്യാറുള്ളു പഴങ്ങള് അങ്ങനെ ചെയ്യും പിന്നെ റംബൂട്ടാൻ പിന്നെ ഈ ചെറു ചെറുനാരങ്ങേൻ്റൊക്കെ ഉണ്ട് ചെറുനാരങ്ങേൻ്റെൊക്കെ ചെറിയ ചെറിയ ചെടികളാണ് അപ്പോൾ അത് നമുക്ക് അതായത് വേനൽകാലത്തൊക്കെ വെള്ളം വെച്ച് കുടിക്കാനുള്ള ആ ഒരു രീതിലുള്ള ചെടികളാണ് അതൊക്കെ അങ്ങനെ ആ രീതിയിൽ നമ്മളുടെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കും